എന്നാൽ പറയട്ടെ ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ആണ് അപ്പം ആറന്മുളയിൽ ഏറ്റവും കൂടുതലെന്ന് വച്ചാൽ അറുപത്തിനാലു കൂട്ടം വിഭവങ്ങളാണ് ഇതിനകത്ത് ഉള്ക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് ഭക്ഷണം കഴിക്കാന് വേണ്ടി തന്നെ ഈ ലോകത്തെ തന്നെ നാനാ ഭാഗത്തുനിന്നും ആള്ക്കാർ തന്നെ വരുന്നുണ്ട് കാരണം എന്നു വച്ചാൽ ആഗ്രഹസാഫല്യത്തിന് വേണ്ടിയാണ് ഈ വള്ളസദ്യ വഴിപാട് ഈ ആള്ക്കാർ നടത്തുന്നത് അതായത് പള്ളിയോടത്തിൽ നിന്നാണ് പള്ളിയോടത്തിൽ വരുന്ന ആള്ക്കാരും പിന്നെ പറത്തുനിന്നുള്ള ആള്ക്കാര്ക്കും വേണ്ടി പ്രത്യേകതരം പാസ് ഉപയോഗിച്ച് മാത്രമാണ് അത് കഴിക്കാന് പറ്റത്തുള്ളൂ കാരണം എന്നു വച്ചാൽ ഇതിനകത്ത് തന്നെ ആറന്മുളയിൽ ആറന്മുളയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായതെന്ന് പറഞ്ഞാൽ പാര്ത്ഥസാരഥി ആണ് പാര്ത്ഥസാരഥിയുടെ മുമ്പില് നിന്ന് ആര് എന്ത് ആഗ്രഹങ്ങള് പറഞ്ഞാലും അതു സാധിച്ച് കൊടുക്കുന്ന ഒരു സാരഥിയാണ് ഈ വള്ളസദ്യ വഴിപാടെന്ന് പറയുന്നത് അന്ന് അങ്ങനെ അറുപത്തിനാലു കൂട്ടം വിഭവങ്ങളില് തന്നെ മെയിന് ആയിട്ട് തന്നെ പായസം തന്നെ നാലുകൂട്ടം പായസങ്ങളാണ് ഇതിനകത്ത് ഉള്പ്പെടുത്തിയിരിക്കുന്നത് പിന്നേ പിന്നെയുണ്ട് പരിപ്പുണ്ട് സമ്പാറുണ്ട് അങ്ങനത്തെ കുറേ വിഭവങ്ങളാണ് ഇതിനകത്ത് ഉള്പ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അതിനകത്തുതന്നെ വള്ളംകളി പ്രത്യേകിച്ച് വള്ളിയോടത്തിന്റെ വള്ളംകളിയാണ് അമ്പത്തിരണ്ട് കരങ്ങൾ അടങ്ങിയൊരു ക്ഷേത്രമാണ് ആറന്മുള ഷേത്രം ആ ഏരിയയിൽ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വച്ചാൽ ഞാനിപ്പം മെയിലിയരക്കരക്കാരനാണ് അപ്പോൾ ആ മെയിലിയരെ തന്നെ ഞങ്ങൾക്കൊരു പള്ളിയോടം ഉണ്ട് ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് തുഴഞ്ഞ് ഭഗവാന്റെ അടുത്ത് പോയി അവിടെ പോയി ഈ വള്ളസദ്യ വഴിപാടിൽ പങ്കെടുത്ത് അവിടെ എല്ലാം അര്പ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോരുന്നത് എല്ലാ മാസം ചിങ്ങത്തിൽ ഉത്രട്ടാതി നാളിലാണ് ഭഗവാന്റെ പിറന്നാൾ അന്ന് തന്നെയാണ് ഭഗവാന്റെ പിറന്നാളിനാണ് പമ്പയാറ്റ് പമ്പ ആ ഭഗവാന്റെ തൊട്ടടുക്കൽക്കൂടെ ഒഴുകുന്ന ആ നദിയായ പമ്പയിൽ വള്ളംകളി വള്ളംകളി നടത്തുന്നത് അപ്പം അതില് ഉള്പ്പെടുപ്പിച്ചിരിക്കുന്ന ആ കഴിക്കുന്നതില് ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് ആറന്മുള വള്ളസദ്യയില് ഉള്പ്പെടുത്തിയിട്ടുള്ളത് കാരണം എന്നു വച്ചാൽ ഇത് അതിനകത്തെ മെയിനായിട്ട് അഷ്ടമിരോഹിണി വള്ളസദ്യയുണ്ട് കാരണം എന്നു വച്ചാൽ എല്ലാവര്ക്കും പാസ്സ് ഇല്ലാതെ തന്നെ എല്ലാ ആരു വന്നാലും എവിടെനിന്ന് ഏത് നാട്ടിൽ നിന്ന് വന്നാലും അവര്ക്കെല്ലാം കൂടെ കഴിക്കാന് കൊടുക്കുന്ന ഒരു സദ്യ ഏക സദ്യ ആറന്മുളയിൽ മാത്രമേ ഉള്ളൂ